അതേ നിങ്ങള് എവിടെയാണ് എന്നൊന്ന് പറയുവായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഞാന് ഒരു കാര്യം ഓഡര് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആപ്പ് വഴി ഞാനൊരു കാര്യം ഓഡര് ചെയ്തിട്ടുണ്ട് അപ്പോള് നിങ്ങൾ എവിടെയാന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു കാരണം ഞാന്

ഡെലിവറി ചെയ്ത് ഞാൻ ആപ്പ് വഴി ഫോണ് വഴി നോക്കിയിട്ടാ ഫോൺ ആപ്പ് വഴി നോക്കിയിട്ടാണ് നമ്പര് എടുത്തത് അപ്പോള് നിങ്ങൾക്ക് വരാന് പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഇവിടെ എല്ലാ ആൾക്കാരും വിശന്നിട്ട് ഇരിക്കുവാണേ അപ്പോള് അവർക്ക് കഴിക്കാന് പറ്റുകയാണെങ്കിൽ അവർക്കെത്രയും വേഗംന്ന് എത്തിച്ചു കൊടുക്കാന് പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്ന് ഞാനാഗ്രഹിക്കുന്നു

അപ്പോള് നിങ്ങളാ ഒരു രീതിയിലൊന്ന് കണക്കാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നേനെ അപ്പോള് ഞാനെത്ര എത്ര നേരം വെയിറ്റെയേണ്ട വരും ഇപ്പോൾ കുറേ സമയം എടുത്തു എന്നു തോന്നുന്നു കുറേ സമയം എടുക്കുവെന്നു തോന്നുന്നു എ എത്രയും വേഗംന്ന് എത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോള് എത്രയും വേഗംന്ന് എത്താന് പറ്റുവാണെങ്കിൽ അത്രയും ലാഭകരമായിട്ട് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്ന് ഞാൻ വിശ്വസിക്കും അപ്പോള് പെട്ടെന്ന് എത്താൻ നോക്കുക കേട്ടോ എ എത്ര എത്ര സമയം എടുത്താണെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്കുക കേട്ടോ